ഞാൻ യാത്ര ചെയ്യാനുള്ള ചില കാരണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായി പോകുന്നത് ഒന്ന് ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്കാണ് എൻ്റെ വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് പോകും അത് ഒരു രാത്രി നീളുന്ന യാത്രയാണ് ട്രെയിനിലോ ബസ്സിലോ ആയിരിക്കും ഞാൻ മിക്കപ്പോഴും പോകുന്നത് എങ്ങനെയാണോ ടിക്കറ്റ് ലഭിക്കുന്നത് അതിനനുസരിച്ച് ആയിരിക്കും ഞാൻ യാത്ര പ്ലാൻ ചെയ്യുന്നത് ട്രെയിൻ ടിക്കറ്റ് ആണ് കിട്ടുന്നെങ്കിൽ ട്രെയിൻ ടിക്കറ്റിൽ ബസ് ആണെങ്കിൽ ബസ്സില് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിനിൽ ഞാൻ ചിലവഴിക്കുന്ന സമയം വളരെ കൂടുതലായിരിക്കും ബസ്സിലാണെന്നുണ്ടെങ്കിൽ ഒരു രാത്രി മാത്രം വളരെ ട്രെയ്നിനെക്കാളും കുറച്ച് സമയം ബസ്സിൽ ചിലവഴിച്ചാൽ മതി അപ്പോൾ ഞാൻ കൂടുതലും ചൂസ് ചെയ്യാറുള്ളത് ബസ് തന്നെയാണ് അതാണ് എൻ്റെ ഒരു സ്ഥിര യാത്ര എന്ന് പറയുന്നത് പിന്നെ എൻ്റെ രണ്ടാമത്തെ ഒരു സ്ഥിര യാത്ര എന്ന് പറയുന്നത് ഞാൻ നാട്ടിലുള്ളപ്പോഴൊക്കെ എൻ്റെ അമ്മുമ്മയെ കാണാനായിട്ട് കുടുംബവീട്ടിലേക്ക് പോകും അമ്മുമ്മയുടെ ആവശ്യങ്ങൾ നോക്കാനോ അല്ലെങ്കിൽ അമ്മൂമ്മയ്ക്ക് എന്നെ കാണണമെന്ന് തോന്നിയാലോ എനിക്ക് അമ്മുമ്മയെ കാണണമെന്ന് തോന്നിയാലോ ഞാൻ അങ്ങനെ അമ്മൂമ്മയെ കാണാൻ ആയിട്ട് പോകും അതും എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മുപ്പത് കിലോമീറ്ററോളം ദൂരെയാണ് അമ്മൂമ്മയുടെ വീട് അതും ഒരു യാത്രയാണ് ഇപ്പോൾ ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് നാട്ടിലേക്ക് എത്തുന്നത് ഒന്നുങ്കിൽ മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു തവണയോ ആയിരിക്കും അപ്പോൾ ആ വരുന്ന ടൈമിൽ ഞാൻ സ്ഥിരം എൻ്റെ അമ്മുമ്മയെ പോയി കാണാറുണ്ട് അപ്പോൾ ഈ രണ്ട് യാത്രകളാണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുള്ളത് പിന്നെ അങ്ങനെ ചുറ്റാൻ പോകുന്നതോ അങ്ങനെ ഒരു യാത്ര നമ്മൾ സ്ഥിരമായി പോകാറില്ല എല്ലാം ആവശ്യ കാര്യങ്ങൾക്കായിരിക്കും സ്ഥിരമായി ഞാൻ യാത്ര ചെയ്യാറുള്ളത് ഒന്ന് ജോലി പിന്നെ ഒന്ന് എൻ്റെ അമ്മൂമ്മയെ വിസിറ്റ് ചെയ്യാൻ ഇത് മാത്രമാണ് ഞാൻ ചെയ്യുന്ന പ്രധാന രണ്ട് യാത്രകൾ